ഹലോ ആ ഹലോ ആരാണ് അതേ അതേ അതേ അതേ സിന്ധു പറഞ്ഞ ആളാണ് സിന്ധു പറഞ്ഞ ആളാണ് ആ മേഡം മേഡമെവിടുന്നാണ് വിളിക്കുന്നത് ആ

ഓക്കേ ഓക്കേ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ അത് എന്താ മേടം മേടം നമ്മുടെ കേരളത്തിലാണെങ്കിലൊരുപാട് ക്ഷേത്രങ്ങളുണ്ട് എങ്കിലുമാൾക്കാർ കൂടുതലായിട്ട് വിദേ വിദേശത്ത് നിന്നു വരുന്ന നമ്മുടെ മലയാളികൾ തന്നെ മലയാളികളല്ല വിദേശത്തുള്ള ആൾക്കാർ ഏതു രാജ്യത്തിൽ നിന്നുള്ളവരായാലും കൂടുതലായിട്ട് സന്ദർശിക്കുന്നത് നമ്മുടെ നമ്മുടെ തിരുവനന്തപുരത്തുള്ള ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് ഏറ്റവും കൂടുതലാൾക്കാർ സന്ദർശിക്കുന്നത് പിന്നെ ഗുരുവായൂരുണ്ട് അവിടെയുമാൾക്കാർ സൻ പോകുന്നുണ്ട് എങ്കിലും നമ്മളുടെ എല്ലാ എല്ലാ എൽ എല്ലാം കൊണ്ടും നമ്മൾ ക്ഷേത്രത്തിൽ ചെന്നു പോകുന്നത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് അപ്പോൾ നമുക്കാദ്യം അവിടെ പോകുന്നതിനേക്കുറിച്ച് പറയാം അത് തലസ്ഥാനത്തു തന്നെയാണ് മേടം തിരുവനന്തപുരത്തു തന്നെയാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം തിരുവനന്തപുരത്തു തന്നെയാണ് അവിടേ അവിടെയെന്നു പറഞ്ഞാൽ മേടം വാർത്തയിലൊക്കെ അറിഞ്ഞു കാണും ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഏറ്റവും വലിയ നിധി ശേഖരമുള്ള ഒരു അമ്പലമാണത് അവിടെ ആ അതേയതേ വായിച്ചിട്ടുണ്ട് ആ ആ അതെ അതെ അതെ അതെ ആ അതു പിന്നെ അതിനൊരുപാടൈതിഹ്യങ്ങളുണ്ട് മേടം അതു വിഷ്ണുവിൻ്റെ ആ ഒരു മഹാവിഷ്ണുവിൻ്റെ അനന്തശയന രൂപത്തിലുള്ള ഒരു ആ ഒരു വിഗ്രഹമാണവിടെ അനന്ത ശയന രൂപമാണ് അപ്പവിടെ ആ അപ്പം നമുക്കാദ്യമങ്ങോട്ടു തന്നെ ഓക്കെ ഓക്കെ ആ രാജഭരണകാലത്ത് അതിന് മുൻപേ രാജാക്കന്മാരുടെ ഭരണകാലത്താണ് അതിപ്പോൾ അത്രയും ഈ അവസാനത്തെ തിരുവിതാങ്കൂറിൻ്റെ അവസാനത്തെ രാജാവിൻ്റെ ഭരണകാലത്താണ് ഇത്രയും നവീകരിച്ചത് ഇത്രയും പുനരുദ്ധാരണം ചെയ്തത് അതിനു മുൻപേ പണ്ട് അതിനു മുന്നേയുള്ള ക്ഷേത്രമാണ് ഇത്രയും പുരോഗമിച്ചത് ഇപ്പോൾ ഈ സം ഈ രാജാവിൻ്റെ ചിത്രതിരുന്നാൾ മഹാരാജാവിൻ്റെ കാലത്താണ് ഇത്രയും പുരോഗമനമുണ്ടായത് മേടം അപ്പം നമുക്കവിടെ ആ വിഷ്ണുവിൻ്റെ അന വിഷ്ണു മഹാവിഷ്ണുവിൻ്റെ അനന്തശയനമാണ് മഹാവിഷ്ണുവല്ല അത് അനന്തശയനം മഹാവിഷ്ണുവിന് അല്ല അനന്തശയനം അതി അടുത്ത അവതാരം അടുത്ത അവതാരം എടുക്കുന്നതിനു മുമ്പ് വിഷ്ണു ആ ആലോചിച്ചിരിക്കുന്ന ഒരു സമയമുണ്ട് ആ ഒരു സമയത്ത് ഉള്ളതാണ് ഒരു രൂപമാണ് അത് അവതാരമല്ല അതൊരു ഒരവസ്ഥയിൽ അല്ല അല്ല മഹാവിഷ്ണുവിൻ്റെ അടുത്ത ഒരു ആ അവതാരത്തിലേക്ക് പോകുന്നതിനു മുൻപ് വിഷ്ണു ആലോചിച്ച് അല്ലെങ്കിൽ അത് അതൊരു ഒരു ചിന്താ വിഷനായിട്ട് കിടക്കുന്ന ഒരു ശിലയിൽ കൊത്തിയ ഒരു രൂപമാണത് ഓക്കേ അ ടിപ്പു സുൽത്താൻ്റെ പടയോട്ട കാലത്ത് രാജാവ് അവിടെക്കുറേ നിക്ഷേപങ്ങളുണ്ടാക്കിക്കൊണ്ട് ആ ഓക്കെ പറഞ്ഞോ ആ പക്ഷേ ആ അവിടുത്തെ ക്ഷേത്ര ക്ഷേത്ര സന്ദർശനത്തിനൊരുപാട് നിബന്ധനകളും നിയമ നിയമങ്ങളുമുണ്ട് അവിടെ എന്ന സെക്ക് ഫുൾ സെക്യൂരിറ്റിയാണ് പട്ടാളക്കാരും അവരുടെ അണ്ടറിലാണ് ആ ക്ഷേത്രമുള്ളത് അപ്പമവിടെ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ആരെങ്കിലും സ്ത്രീകൾക്ക് സാരി മാത്രമേ ഉടുത്തതു കൊണ്ട് വരാൻ പറ്റത്തുള്ളൂ അല്ലാതെ ആഭരണ വലിയ പുരുഷന്മാർ മുണ്ടെ ഉടുക്കാൻ പാടുള്ളൂ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നുള്ളതിൽ വാസ്തവമൊന്നുമില്ല നമ്മളേത് ഏതു മതത്തിലാണ് ഏതു മതത്തിലാണ് വിശ്വസിച്ചാലും നമുക്ക് ആ ആ അമ്പലങ്ങളിൽ അഹിന്ദുകൾക്ക് പ്രവേശനമില്ല എന്ന് അവിടെയെഴുതി വെച്ചിട്ടില്ല അവിടെ ഏതു മതക്കാർക്ക് വേണമെങ്കിലും കയറിപ്പോകാം പക്ഷേ അതാരും പരസ്യമായിട്ടു പോകാറില്ല നമ്മൾ ആ നമ്മൾക്കു പിന്നെ ഏതു മതത്തിൽ ഏത് അമ്പലത്തിൽ പോകണമെങ്കിലും ഞാൻ ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്നു എന്ന് എഴുതിക്കൊടുത്താൽ നമ്മൾക്കേതമ്പലത്തിലും കയറാം എന്നാ എന്നതാണ് ഞാൻ ഹിന്ദു ആരാധനയിൽ വിശ്വസിക്കുന്ന ഒരാൾ ആണ് എന്നു നമ്മളെഴുതി കൊടുത്താണെങ്കിൽ നമുക്കേത് ലോക നമ്മുടെ കേരളത്തിലുള്ള ഏത് അമ്പലങ്ങളിലും കയറാൻ പറ്റും ഓക്കെ താങ്ക് യൂ മേഡം മേഡത്തിന് ഡേറ്റ് പറഞ്ഞാൽ മതി ഞാൻ ഞാൻ മേഡത്തിന് വെയ്റ്റ് ചെയ്യാം ഓക്കെ